നല്ല നിലവാരമുള്ള അല്ലെങ്കിൽ നല്ല നിലവാരവും ആരോഗ്യവുമുള്ള മൃഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പശുവിനെ പറയുകയാണെങ്കിൽ ഒരു നല്ല പാൽ തരുകയും അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉള്ളൊരു പശുവിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് ആണെങ്കിൽ ആ പശുവിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകിടിന് വലിപ്പം നല്ല അകിടിന് നല്ല വളർച്ചയും വലിപ്പവും ഉണ്ടാകും അതേ പോലെ തന്നെ അതിൻ്റെ കൊമ്പിന് നീളക്കുറവായിരിക്കും അത് സാധാരണ കൊമ്പുകൾ പോലെ വലിയ കൊമ്പുകൾ ഒന്നും ഉണ്ടാവില്ല കൊമ്പു ചെറുതായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ വാലിന് നീളം കൂടുതലുണ്ടാകും ഈ മൂന്നു കാര്യങ്ങളാണ് ഒരു ആരോഗ്യവും അത്യാവശ്യം പാലൊക്കെ തരുന്ന പശുവിനെ വെച്ചു നോ പശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ നോക്കാൻ അതിൻ്റെ അകിടും കൊമ്പും വാലുമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആടിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ അല്ല അതു പോലെ തന്നെ പശുവിൻ്റെ ആണെങ്കിൽ എച്ച് എഫ് പശുവായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് നന്നായിട്ട് പരിപാലിക്കാനും അതുപോലെ തന്നെ നല്ല പാൽ തരുന്ന ഒരു പശുവിൻ്റെ ഇനങ്ങളിൽ പറയുമ്പോൾ അത് ഒരു എച്ച് എഫ് പശു നല്ലതായിരിക്കുംന്ന് പറയുന്നത് കേൾക്കാം അതു പോലെ തന്നെ നമ്മൾ ആടിൻ്റെ കാര്യത്തിൽ പോകുകയാണെങ്കിൽ ആടിൻ്റെ മുതുകിലെ പൂട ജാസ്തി ആയിരിക്കും മറ്റെ കുറച്ചു നല്ല ആ ആരോഗ്യവും പാലും തരുന്ന പ ആടിന് മറ്റ് ആടുകളെ അപേക്ഷിച്ച് വച്ച് നോക്കുമ്പോൾ അതിൻ്റെ മുതുകിലെ പൂട മറ്റുള്ളവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ചെവിയുടെ നീളംന്നു പറയുന്നത് അതും നീളം കൂടുതലായിരിക്കും നീളം ജാസ്തിയുള്ള ചെവിയുള്ള ആടുകൾ നല്ല ആരോഗ്യവും ഗുണനിലവാരവും അത്യാവശ്യം നല്ല പാലും തരുന്ന പശുവായിരിക്കും അതിൽ നമ്മൾ പൂച്ചേനെ നോക്കുവാണെങ്കിൽ അതിൻ്റെ മീശ അതിൻ്റെ മീശ ഒരു നല്ല നല്ല നീളത്തിൽ നല്ല എടുപ്പിലുള്ള മീശയുള്ളതും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാൽ നല്ല നീളവും ആ വാലിന് അതുപോലെ തന്നെ നല്ല രോമവുമുള്ള പശുവും അല്ല പൂച്ചയും നല്ലതായിരിക്കും എന്നൊക്കെ ഞാനിതൊക്കെ അറിഞ്ഞതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ നന്നായിട്ട് മൃഗങ്ങളെ പരിപാലിക്കുന്ന ആൾക്കാരുണ്ടാകില്ലേ അതായത് ഫാമുകൾ നടത്തുന്ന അങ്ങനെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഒരു മൃഗ ഡോക്ടറോട് ഒക്കെ ചോദിച്ചാൽ അദ്ദേഹം പറയുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് അതുപോലത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെയാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്